ഹലോ ഹലോ ഇത് റോയൽ ഇവൻറിൻ്റെ മാനേജർ അല്ലേ ആ ഞാൻ ഒരു ഇവൻ്റ് പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാനാണേ വിളിച്ചത് അത് ഇവൻ്റ് എൻ്റെ ബ്രദറിൻ്റെ റിസപ്ഷൻ ആണ് അപ്പോൾ അതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് അപ്പം ഞാൻ നിങ്ങളുടെ വർക്ക് ഒക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നിങ്ങളെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇവൻറ് ആണ് എ ഇ ഇവൻറ് എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ നമൂക്ക് അവോയിഡ് ചെയ്യാം നമുക്ക് തീരുമാനം ഗ്ലാസ്സ് ബോട്ടിൽസോ അങ്ങനെ മൊത്തം എല്ലാം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു കാര്യം ഓക്കെ ഓക്കെ അപ്പം പിന്നെ അതുപോലെ ഫംഗ്ഷൻ ഒരു തീം നമുക്ക് സെറ്റ് ചെയ്യണം പിന്നെ അത് ഒരു ക്ലാസ്സും എലഗൻസ് ഒക്കെ ഉണ്ടായിരിക്കണം അധികം ആർഭാടം ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്ത് തന്നാൽ മതി ഉം ഉം

ഉം ഒ ഒ ഓക്കെ ഞാനേ ഞാൻ ലൊക്കേഷനും ഡേറ്റും ഒക്കെ അയച്ചുതരാം പിന്നെ ഞാൻ പറഞ്ഞത് പോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വേണം ഇവൻ്റ് അതിലൊരു മാറ്റവും വരാൻ പാടില്ല പിന്നെ പിന്നെ ഞാൻ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യം അതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഓ ഓക്കെ ശരി താങ്ക് യു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ശരി ഓക്കെ താങ്ക്സ്